ആ ഞാൻ പറയുന്നത് ഫ്രിഡ്ജിനെപ്പറ്റിയാണ് എന്നുവെച്ചാൽ ഏറ്റവും നല്ല ഉപകാരമുള്ള ഒരു സാധനം തന്നെയാണത് കാരണം എല്ലാ വീട്ടിലും തന്നെ ഫ്രിഡ്ജ് ഉണ്ടാവും ഇപ്പോൾ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഒരു സാധനം തന്നെയാ കാരണമെന്നുവെച്ചാൽ ഫൂഡൊക്കെ ആണേലും നമുക്ക് ഒരുപാട് പ്രേസേർവ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെത്തന്നെ ഇപ്പോൾ ഒരു ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെ വാങ്ങുവാ വെച്ചാൽ നമ്മൾ ക്വാണ്ടിറ്റി ഉള്ള ഇപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചാൽ എൽ സാംസങ്ങിൻ്റെ നല്ല ഫൈവ് സ്റ്റാർ ക്വാണ്ടിറ്റി ഉള്ള ഫ്രിഡ്ജ് തന്നെയാ യൂസ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് ഏറ്റവും ഇപ്പം ഞാൻ ഏറ്റവും കൂടൂതൽ ഇമ്പോർട്ടറ്റൻസ് ഇപ്പോൾ അതിനകത്തു ഒരുപാട് നല്ല വശങ്ങളുണ്ട് കാരണം നമ്മൾക്ക് ഫ്രൂട്സ് ആണെങ്കിലും അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അത് എത്ര ദിവസം വേണേലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ മോശ മോശപ്പെടാതെ നമുക്ക് എത്ര നാള് വേണേലും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാം വെജിറ്റബിൾസ് ആണേലും ഒക്കെ നന്നായിട്ടിരിക്കും കൂളിംഗ് തന്നെ ആണെങ്കിൽ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റജ് തന്നെയാണ് നമ്മൾ ഐസ്ക്രീംസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേക് ചെയ്തേൽ അത് നല്ല കൂളിങ്ങോടുതന്നെ എപ്പോഴും ഇരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരുപാട് യൂസ് എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പം തലേദിവസത്തേക്കുള്ള ഫുഡ് എന്നേലും നേരത്തെ വന്നു നമ്മൾ ഫ്രിഡ്ജൊക്കെ ഉള്ളപ്പം വേനൽക്കാലത്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരുപാട് ത തണുത്ത വെള്ളമൊക്കെ വെച്ച് അത് നല്ല യൂസ്ഫുൾ ഉള്ള കാര്യം തന്നെയാണ് അപ്പം എന്നെ സംമ്പദ്ധിച്ചോളം ഏറ്റവും കൂടുതൽ എല്ലാ വീട്ടിലും തന്നെ എല്ലാവരും തന്നെ ഒരുപാട് ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഇത് ഫ്രിഡ്ജ് തന്നെയാ കാരണം എല്ലാ വീട്ടിലും തന്നെ ഉണ്ട് അപ്പോൾ വേനൽക്കാലത്താണേലും മഴക്കാലത്താണേലും എന്ത് ഇതായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളൊരു ഇത് തന്നെയാണ് ഫ്രിഡ്ജ്